മലയാള ഭാഷയുടെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ആണല്ലോ മലയാളഭാഷ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ലക്ഷദ്വീപ് പോലെയുള്ള സ്ഥലങ്ങളിലും മലയാളഭാഷ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം അത് സംരക്ഷിക്കുന്നതിന് നമുക്ക് ഏറ്റവും കൂ അധികം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾക്ക് മലയാളഭാഷ കൃത്യമായിട്ട് എഴുതാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവർക്ക് തീർച്ചയായിട്ടും സാധിക്കും പക്ഷേ നമ്മുടെ മറ്റ് അതായത് ഇവിടെ വളർന്നു വരുന്ന വിദ്യാർഥികൾക്ക് മലയാള ഭാഷയിൽ കൂടുതൽ പ്രാവീണ്യം കിട്ടുന്നതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് കൃത്യമായിട്ട് നമ്മുടെ പഠന പാഠ്യ വിഷയങ്ങളിലും ഒക്കെ മലയാളം കൃത്യമായിട്ട് ഉൾപ്പെടുത്തുക മലയാളത്തിലെ പ്ര പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങളും കൃതികളും ഒക്കെ അവരെ പഠിപ്പിക്കുക അതുവഴി കൂടുതൽ പ്രാവീണ്യം മലയാള ഭാഷയിൽ ഉണ്ടാകാൻ സഹായകമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മറ്റ് നമുക്കറിയാം ഇപ്പം മലയാളം കുറച്ചു വർഷങ്ങൾക്കു മുൻപ് ക്ലാസിക് ലാംഗ്വേജായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലുള്ള അഞ്ച് ക്ലാസിക് ലാംഗ്വേജുകളിൽ ഒന്നാണ് മലയാളം അതുകൊണ്ടുതന്നെ മലയാളികൾ മാത്രമല്ല പുറത്തുള്ള ആളുകളും മലയാളം സംസാരിക്കാനും എഴുതാനും ഒക്കെ ശ്രമിക്കുന്നും പഠിക്കുന്നും ഉള്ള ഒരു സമയത്തിലൂടെയാണ് നമ്മളിപ്പം കടന്നു പോകുന്നത് അതുകൊണ്ട് അത്തരത്തിൽ ആ പുറത്തുള്ള ആളുകൾക്കും മലയാളത്തിൽ ഇഷ്ടം മലയാളം ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും അത് പഠിക്കാനും എഴുതാനുമുള്ള അവസരങ്ങൾ നമ്മുടെ ഗവൺമെൻറ്റ് മുൻകയ്യെടുത്ത് ചെയ്യണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്